ആ

അത് പെരിന്തൽമണ്ണ പോയതാണ്

ഇവിടെ അടുത്ത് നല്ല അടുത്തൊന്നും ഇല്ല കുറച്ച് പോവാനുണ്ട് ആ ആ

കോണ്ടാക്റ്റ് നമ്പർ അവിടെ ഇവിടെ അടുത്ത് ഉള്ളത് മങ്കട ഉണ്ട് ഒന്ന്

അവിടെ അവിടെ ജംഗ്ഷൻ തന്നെ ആ അതെ

പേരെന്താണ് എന്താണ് വൈകുന്നേരം ഒരു ആറ് മണി വരെ ഒക്കെ ഉണ്ട്

ആ ഇവിടെ സ്കൂട്ടി ഉണ്ട് അതെടുത്ത് വേണമെങ്കിൽ പോ